ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീ ശാക്തികരണം വളരെ അധികം മുൻപോട്ടു പോയിട്ടുണ്ട് ജില്ലയിൽ ഇതിലൊന്നാമത്തേത് എന്തെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം തന്നെയാണ് പണ്ട് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസം മേഘലയിൽ വളരെ പിന്നോട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പാലക്കാട് വളരെ മുൻപോട്ട് പോയിട്ടുണ്ട് അതിൽ പ്രധാനമായും പെൺകുട്ടികൾ തന്നെയാണ് പിന്നെ അടുത്തത് സ്ത്രീകൾ എല്ലാ മേഖലയിലും ജില്ലയിൽ മുന്നോട്ട് വരുന്നുണ്ട് എല്ലാ തൊഴിൽ മേഖലയിലും സ്ത്രീകൾ മുന്നോട്ടു വരുന്നുണ്ട് അവർക്ക് മികച്ച സംവരണം എല്ലാം കിട്ടുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ആണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും സ്ത്രീകളുടെ സംവരണം വളരെ മികച്ചതാണ് ജില്ലയിൽ അതുപോലെത്തന്നെ ജില്ലയിൽ കുടുംബശ്രീ പ്രവർത്തനം വളരെ മികച്ചതാണ് അതവർക്ക് സ്ത്രീ ശാക്തികരണം മികച്ചതാക്കാനും അവരെ എല്ലാ മേഖലയിലും മുന്നോട്ടു കൊണ്ടുവരാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്